ഇടക്ക് നോക്കണം മൂന്ന് മിനിറ്റ് ആവുമ്പോൾ കട്ട് ചെയ്യാമോ

ആ പറഞ്ഞോ പറഞ്ഞോ അതെ അതെ പറഞ്ഞോളൂ അതെ അതെ പോത്തുണ്ട് പന്നിയുണ്ട് ആ പോത്തിന് മൂന്നുറ്റി അറുപത് രൂപ ആ ആ അ നമുക്ക് നമ്മുടെ വില അങ്ങനെയാ നമ്മൾ കോളിറ്റി സാധനമാണ് കൊടുക്കുന്നത് ഇല്ലില്ല ഇല്ല ഒന്നിച്ച് എടുത്താലും പറ്റുകേല വിലക്കകത്ത് കുറക്കുകേല

ആ നുറുക്കി തരണമെങ്കിൽ തരാം അത് പക്ഷേ സമയം എടുക്കും ആ അത് സമയം എടുക്കും വെയ്റ്റ് ചെയ്യേണ്ടിവരും വീട്ടിലെത്തിക്കാൻ പത്ത് കിലോ വരെ ഉള്ളതാണെ കൂട്ടും ചെറിയ ക്വാണ്ടിറ്റി എടുക്കുകേല പത്ത് കിലോയ്ക്ക് മോളിലുള്ളതൊക്കെ ആണെങ്കിൽ വീട്ടിലെത്തിക്കാം ആ ഹോട്ടൽ ആവശ്യത്തിനാണെങ്കിൽ അത് ചിലപ്പം റേറ്റ് കുറച്ച് തരാൻ പറ്റും സ്ഥിരം റെഗുലർ ആണെങ്കിൽ ഹോട്ടൽ ഓ ഹോട്ടലിലേക്ക് റേറ്റ് കുറച്ച് കിട്ടണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ എടുക്കണം എന്നാലേ പറ്റത്തുള്ളൂ നല്ല നല്ല സാധനം നല്ല സാധനം തന്നെയാണങ്കിൽ വില കുറയ്ക്കാൻ പറ്റുകേല ഇറച്ചി മാത്രം ആവുമ്പോൾ മ്മ് പത്ത് കിലോ ആയാലും ക്വാളിറ്റിയുള്ള സാധനം തന്നെ തരുമ്പം ഇറച്ചി തന്നെ തരുമ്പം അതിൻ്റെ വിലയും വരുകേല പത്ത് കിലോ റെഗുലർ ആകുമ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും നമുക്ക് ചെയ്യാം ആ അങ്ങനെ ആണെങ്കിൽ ഒരു ഇരുപത് രൂപ കുറച്ച് തരാൻ പറ്റും അത്രേ ഉള്ളൂ ആ അത് തരാം അത് തരാം സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ കൊണ്ട് തരുന്നതിന് പത്ത് കിലോയ്ക്ക് മേളിലുള്ളത് കുഴപ്പം ഇല്ല

ശരി ശരി അപ്പം ഇന്ന് എത്രയാ വേണ്ടത് ആ പന്നിയിറച്ചി വേണോ അപ്പം ആ അത് തരാം വന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി മ്മ് പോത്തിറച്ചി പോത്തിറച്ചി മാത്രം മതിയോ ഒന്നെങ്കിൽ മുന്നൂറ്റി ഇരുപത് അത് പറ്റുകേല പന്നിക്ക് പന്നിക്ക് നെയ്യ് ഇല്ലാതെ തരാൻ പറ്റുകേലല്ലോ പന്നിയുടെ തൊലിയും നെയ്യും ഇറച്ചിയും ഉൾപ്പെടെയുള്ളൂ അങ്ങനെ അങ്ങനെ തരാൻ പറ്റത്തുള്ളൂ ആ പന്നിക്ക് നമുക്ക് അങ്ങനെ തരാൻ പറ്റത്തുള്ളൂ പന്നി ഇറച്ചിയുടെ പ്രത്യേകത അറിയാമല്ലോ അതിൻ്റെ തൊലിയും നെയ്യും കൂടിയതാണ് പോത്തിറച്ചി പോലെ ഏതാ ആട് ഓട്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ അത് കൺഫോം ആയിട്ടുള്ള ഓട്റ് ഉണ്ടെങ്കിൽ ചെയ്തു തരാം ആ വരാം വരാം ആടിന് എണ്ണൂറ് രൂപ

അത് നല്ല ആട്ടിറച്ചിക്കാണ് എല്ലും എല്ലുമൊക്കെ ആയിട്ടാണ് അറുനൂർ രൂപയ്ക്ക് തരാൻ പറ്റും എല്ലുമൊക്കെ ആയിട്ടാണെ അറുനൂർ രൂപയ്ക്ക് തരാൻ പറ്റും ആ ശരി ശരി

ആ ശരി ശരി ഓക്കെ